ഇപ്പോൾ കല കരകൗശല മേഖലകളിൽ സ്ത്രീകള് പൊതുവെ ബാക്കിലോട്ടാണ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ വീട്ടിൽ നിന്ന് വിടില്ല അങ്ങനത്തെ കുറെ പ്രശ്നങ്ങള് ഇപ്പം ചില സമയങ്ങളിൽ നമുക്ക് ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായികൊണ്ടിരിക്കുന്ന സമയത് നമുക്ക് വേറെ ഒന്നിലേക്കും കേന്ദ്രികരിച്ച് പോകാനൊന്നും സാധിക്കുന്നതല്ല അപ്പം വീട്ടില് പല പ്രശ്നങ്ങളും അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ആയത് കൊണ്ട് സ്ത്രീകൾ പൊതുവെ ബാക്കിലോട്ടേക്കാണ് പോകുന്നത് കാരണം അവർക്ക് ആ ഒരു ഇപ്പോൾ വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞിട്ട് ഇത് ഇതിൻ്റെ ഇപ്പോൾ പണികൾ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അതൊക്കെ വളരെ കുറവാണ് അപ്പം സ്ത്രീകൾ അപ്പോൾ പൊതുവെ ബാക്കിലോട്ടേക്ക് ഒക്കെ ആയിട്ടാണ് പോകുന്നത് അപ്പം കൂടുതലായിട്ടും ആണുങ്ങളാണ് കൂടുതലായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അവർക്ക് അതായത് ഇപ്പോൾ അവർക്ക് നല്ലൊരു രീതിയില് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് ഇപ്പോൾ അതിനകത്ത് ഒരു വരുമാനം ഒക്കെ കിട്ടി കിട്ടി തുടങ്ങി കഴിഞ്ഞാല് അവര് നല്ല രീതിയില് അത് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിപ്പിക്കും കാരണം അവർക്ക് ഒരു വരുമാനം കിട്ടുന്നത് തന്നെ വലിയ ഒരു കാര്യമായിട്ടാണ് അപ്പോൾ അങ്ങനെ ഒക്കെ ചെയ്യുവാണെങ്കില് അവർക്ക് നല്ലൊരു അവസരങ്ങളും കാര്യങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യും